ക്യാന്സർ ഹൃദ്രോഗം എന്നിവയുടെ ചികിത്സയ്ക്കായി സൗകര്യങ്ങള് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ചികിത്സയ്ക്ക് ഒക്കെ നല്ല സൗകര്യങ്ങൾ കാര്യങ്ങൾ ഒക്കെയുണ്ട് ശരിക്കും പറഞ്ഞാല് ക്യാന്സര് രോഗികള് ഒക്കെ നല്ല ചികിത്സയൊക്കെ ഫ്രീയായിട്ടും ഫ്രീയായിട്ട് ഒക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെയുണ്ട് ഒരുപാട് അതേപോലെ തന്നെ ക്യാന്സര് രോഗികള്ക്ക് കീമോ ഫിസിയോതെറാപ്പി ഡയാലിസിസ് അങ്ങനെയുള്ള പരിപാടികള് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്യുക കീമോയ്ക്കായിട്ട് കീമോ ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങൾ കാര്യങ്ങൾ ഒക്കെയുണ്ടാകും പിന്നെ നമുക്ക് മലബാര് ഹോസ്പിറ്റലിൽ ഉണ്ട് കണ്ണൂർ അതായത് തലശ്ശേരി അതൊക്കെയെന്നു വെച്ചാൽ ക്യാന്സര് അതായത് എം സി സി എന്ന് പറയുക മലബാര് ക്യാന്സര് ക്യാന്സര് സെന്റര് എന്ന് പറയുക അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഫുഡ് കാര്യങ്ങൾ എല്ലാം അവിടെ തന്നെ കിട്ടും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കീമോ ഒക്കെ ചെയ്തു കൊടുക്കും അത് കീമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് അത്രയും നല്ല സുഖമാണ് അതായത് നല്ലൊരു ഇതാണ് എന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെയുള്ള അവര്ക്കുള്ള ചികിത്സയ്ക്കും കാര്യങ്ങള്ക്കും ഒക്കെ നല്ലൊരു ഉപകാരമാണ് എന്നാൽ എല്ലാവര്ക്കും ഇപ്പം പൈസ പൈസക്കാരായിരിക്കില്ലല്ലോ എല്ലാവര്ക്കും ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു കാര്യമാണ്